എറണാകുളം ജില്ലയിലെ സ്ത്രീകൾ വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും സാമൂഹ്യ നിലവാരത്തിന് വളരെ അധികം മുന്നിൽ നിൽക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അല്പം കൂടി ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ ടെക്നോളജിയുടെ മാറ്റത്തിനനുസരിച്ച് അവയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലും തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസത്തിലുമാണങ്കിലും മുന്നോട്ട് കുതിക്കുവാനായിട്ട് എറണാകുളം ജില്ലയിലെ സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീ സമൂഹത്തെ എറണാകുളം ജില്ലയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർക്ക് മുന്നിൽ വച്ച് നീട്ടപ്പെടുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് നിരവധി തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല വ്യത്യസ്തമായ മേഖലകളിൽ ഓരോ വ്യക്തിയുടേയും സാഹചര്യവും വിദ്യാഭ്യാസ യോഗ്യതയും അനുസരിച്ചു കൊണ്ടുള്ള നിരവധി തൊഴിൽ സാധ്യതകളെ നമുക്ക് എറണാകുളം ജില്ലയിൽ കാണുവാൻ സാധിക്കും ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടു ണ്ടെങ്കിൽ ഏതൊരു വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീയാണെങ്കിൽ പോലും അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു തൊഴിൽ സാഹചര്യം സാമൂഹ്യ നിലവാരം ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലിംഗസമത്വം എറണാകുളം ജില്ലയിൽ ഏകദേശം കാലത്തിന് അനുയോജ്യമായിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തെയാണ് എറണാകുളം ജില്ലയിലായിട്ട് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള വേർതിരിവുകളൊന്നും തന്നെ ഇവിടെ കാണുവാനായി സാധിക്കില്ല വിവേചനങ്ങളൊന്നും തന്നെ കാണുവാനായിട്ട് സാധിക്കില്ല ഏതൊരു തൊഴിൽ മേഖലയിലും തൊഴിൽ സ്ഥാപനങ്ങളിലും ലിംഗ സമത്വം അതിൻ്റെ പൂർണ്ണതയിൽ പാലിച്ചു പോരുന്ന ഒരൂ ജില്ലയാണ് എറണാകുളം ജില്ല സ്ത്രീ ശക്തീകരണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഇടപെടലുകൾ നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് സ്ത്രീശാക്തീകരണത്തെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ട് വരുവാനുള്ള നിരവധി ബോധവൽക്കരണ പരിപാടികളും അതുപോലെ തന്നെ സമരപരിപാടികളുമൊക്കെ എല്ലാം നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല അവിടേക്ക് പെൺകുട്ടികളെ അവരുടെ വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയെ സംബ്ബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും സാമൂഹ്യ നിലവാരത്തിലും സ്ത്രീകൾ അതിൻ്റേതായ രീതിയിൽ സമത്വത്തിൻ്റെ പാതയിൽ തന്നെയാണ് ഉള്ളത്